ഹലോ ഹലോ മാം ഹലോ

ആ യെസ് മാം പറഞ്ഞോളൂ ആ ഓ ഓക്കെ മാം മാം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും ഓക്കെ ഫോർ മെമ്പേഴ്സ് അതിൽ എത്ര ച് ചിൽഡ്രൻ എത്രയാണ് മാം രണ്ട് ചിൽഡ്രൻ ബ ബാക്കി രണ്ട് അഡൾട്സ് ആണ് അല്ലേ ആ ഓക്കെ മാം മാം ഇപ്പം നമുക്ക് വയനാട്ടിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം നമുക്കുണ്ട് വൺ വീക്ക് ടൈമിൽ അല്ലേ മാമിന് ഈ ഒരു സൈക്ക്ളിങ്ങിന് പറ്റിയത് ഓക്കെ മാം വൺ വീക്ക് വൺ വീക്ക് ഓൾറെഡി സ്പെൻഡ് ചെയ്യാനാണല്ലേ സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ മെ മെയ് മേജർലി നമുക്കിവിടെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇൻ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് വായനാട്ടിൽ കൂടുതലായിട്ടുള്ളത് അപ്പം അതിനെ പറയുവാണെങ്കിൽ നമുക്ക് ആ ഓ ആ ഓക്കെ ഓക്കെ ഇപ്പം നമുക്കിവിടെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് കൂടുതലും മലകളൊക്കെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഒരു ഒരു ട്രക്കിങ് പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പം പിന്നെ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ ഒക്കെ നമുക്ക് ഒരുപാട് പോകാം പോകുന്നതിന് ഇഷ്യൂ ഒന്നുമില്ല പക്ഷേ കുറച്ച് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് എഷ് എസ്പെഷ്യലി വാട്ടർഫോൾസ് തന്നെ നമുക്കിവിടെ മീൻമുട്ടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാണാസുര അങ്ങനെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ അവിടെയൊന്നും കുഴപ്പമില്ല മാം ട്രാവൽ ചെയ്യാം മാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടായിരിക്കും പോകുന്നത് അവിടെയും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ മാം ഒ ഒരു ഒന്നു കൊണ്ടും പേടിക്കേണ്ട നമ്മുടെ ഏജൻസി കൃത്യമായിട്ട് നിങ്ങളെ സേഫ് ആയിട്ട് തന്നെ എല്ലാ സ്പോട്ടിലും നമ്മൾ കൊണ്ടുപോകുന്നതാണ് അപ്പം പിന്നീട് നമുക്കൊരു ട്ര ആ മാം മഴയുണ്ട് പക്ഷേ അങ്ങനെ ബ് കനത്ത മഴ എന്ന് പറയാനില്ല ഓക്കെ ആണ് ക്ലൈമറ്റ് ഒക്കെ ആണ് ഓക്കെ മാം നമുക്കിപ്പം മാമിന് അതേപോലെ തന്നെ വാട്ടർഫോൾസ് അല്ലാതെ എന്ത് ട്രക്കിങ്ങ് വരുമ്പോൾ നമ്മുടെ ബ്രഹ്മഗിരി മലയുണ്ട് പിന്നെ ഡാം ഡാം വ്യൂസ് ഉണ്ട് കാരാപ്പുഴ അതേപോലെത്തന്നെ ബാണാസുര എന്ന് പറഞ്ഞ ബാണാസുരയിൽ ഒക്കെ പോയികഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പോട്സ് ഉണ്ട് പിന്നെ ലേക്ക് വ്യൂ കിട്ടാനായിട്ട് പൂക്കോട് പിന്നെ ചെമ്പ്ര പീക്ക് ഉണ്ട് ഒരു ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് ആണത് ഓക്കെ മാം അപ്പം ഈ ഒരു ഈ ഒരു സ്പേസസിൽ മാമിന് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മാമിൻ്റെ പ്ലാൻ ഒക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റ്സ് അതേപോലെത്തന്നെ ടൈമിങ് മാം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് അസൈൻ ചെയ്തിട്ട് മാമിനെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ മാം മാം എന്ന് മുതലാണ് മാം ഉദ്ദേശിക്കുന്നത് ഡേറ്റ് സ്റ്റാർട്ടിങ് ഡേറ്റ് എപ്പോഴാണ് ആ ഷുവർ മാം ഷുവർ മാം ഓക്കെ മാം മാം ഒന്ന് കൺഫോം ചെയ്തിട്ട് ഓക്കെ മാം താങ്ക് യൂ